മലയാള ഭാഷയെ കുറിച്ച് പൊതുവായുള്ള അഭിപ്രായം എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത് കാരണം അക്ഷരങ്ങളുടെ ഒരു വിളയാട്ടം തന്നെയാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് നല്ലോണം നല്ല ക്ലിയറായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാഹ് പഠിച്ചെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ എന്ന് പറയുന്നതും മലയാളം തന്നെയാണ് അത് അത് ഇപ്പോൾ നമ്മുടെ മറ്റുള്ള ഭാഷകൾ വച്ച് കംമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസിലാവും കാരണം മലയാളികൾക്ക് മറ്റുള്ള ഭാഷകൾ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പം ആണെന്നാണ് പറയുന്നത് കാരണം അവരുടെ അക്ഷര സ്ഫുടത വളരെ മെച്ചപ്പെട്ടതായിരിക്കും അതുപോലെ തന്നെ മലയാള ഭാഷ പക്ഷേ നമ്മൾ സംസാരിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് ഭാഷയും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം